നിങ്ങൾക്കെത്ര ദിവസത്തെ ടൂർ പാക്കേജാ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് മഴകാരണം കുറച്ച് സ്ഥലങ്ങളൊക്കെ മീൻമുട്ടിയൊക്കെ അടച്ചിട്ടേക്കുവാണ് കുറുവാദ്വീപ് മൊ മീൻമുട്ടിയൊക്കെ അപ്പം ഒരു ഈ മാസം കഴിഞ്ഞുകഴിഞ്ഞാൽ ഒക്കെ ഓപ്പണാവും അപ്പം അടുത്തമാസം ഒരു പതിനഞ്ചാംതീയതിക്ക് ശേഷം വരുന്നതെങ്കിൽ അങ്ങനാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അപ്പം എല്ലാം ഓൾമോസ്റ്റ് ഓപ്പൺ ആയിക്കിട്ടും അതായത് പിക്കപ് അടക്കം അല്ലേ പിക്കപ്പ് ഡ്രോപ്പ് അടക്കം ആ ഒരാളാണോ എത്ര എത്ര പേരാണുള്ളത് അഞ്ചാൾക്കാർ മുപ്പത്തി അയ്യായിരം രൂപ വരും കേട്ടോ റൂമെത്ര വേണം റൂമനുസരിച്ചാണ് നിങ്ങൾക്ക് ഇപ്പം രണ്ടു റൂമിലെ കാര്യം രണ്ടു റൂമിൻ്റെ കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ അഞ്ചുപേർക്ക് അഞ്ചുറൂമാണെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടിവരും രണ്ടു റൂമ് മതി പിന്നെ ആ അക്കൊമഡേഷനും നമ്മുടെ ഫുഡ്ഡ് പുറത്തൂന്നു നിങ്ങളുടെ സ്വന്തം ചിലവിലാക്കേണ്ടിവരും കേട്ടോ ഫുഡിനും കൂടിയാകുമ്പോൾ കുറച്ചുംകൂടി ക്യാഷാവും എവിടേക്കു പോവാനാ ഉദ്ദേശിക്കുന്നത് എല്ലാം വയനാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഓക്കേ

ആ അപ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ചിൽ മുപ്പത്തിനുള്ളിൽ നമുക്കതു റെഡിയാക്കാം

ഇല്ലില്ല അത് നമുക്കിവിടുന്നു വണ്ടിയുണ്ട് കേട്ടോ നിങ്ങൾ എന്തുവണ്ടിയാണുദ്ദേശിക്കുന്നത് ഇപ്പം അഞ്ചു പേരായതുകൊണ്ട് നമുക്കൊരു ഇന്നോവയോ അങ്ങനെന്തെങ്കിലും ഉള്ളതുനോക്കാം കുറേപ്പേരാണേ നമുക്കിവിടുന്നുതന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ആൾക്കാർ ഗൈഡ് വരും അവരാണ് നമ്മളെ ഓരോ സ്ഥലത്തു കൊണ്ടിറക്കി അവിടുന്ന് പിക്ക് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരേ സ്ഥലത്തുതന്നെ സ്റ്റേ വേണ്ട വയനാട്ടിലെ ഓരോ വേറെ വേറെ സ്ഥലത്താണ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനാഗ്രഹിക്കുന്നത് അങ്ങനേം ചെയ്യും ഒരു നൈറ്റ് വേറൊരു ഇപ്പം ലക്കിടീല് ഒരു റെസ്റ്റോ ഒരു റിസോർട്ടുണ്ട് അവിടെയാണ് എങ്കിൽ വേറെ ഒരുദിവസം മേപ്പാടിയിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കുമാറ്റി ഇതാക്കാം ഞാനെന്തായാലും നിങ്ങൾക്ക് പ്ലാനൊക്കെ ഏ ഓ ട്രെക്കിങ്ങുണ്ട് കേട്ടോ നമുക്ക് തൊള്ളായിരം കണ്ടി ഉണ്ടല്ലോ തൊള്ളായിരം കണ്ടിയുണ്ട് പിന്നെ ഹൃദയതടാകം ഉണ്ടല്ലോ ഇവിടെയൊക്കെ ട്രെക്കിങ്ങ് അലോട് ആണ് ആ കുറുമ്പാലക്കോട്ട ആ ട്രെക്കിങ്ങ് ആ ട്രെക്കിങ്ങാണേ ട്രെക്കിങ്ങിനു പോകാം അതൊരു ഒരു രാവിലെ പോകണം നമ്മൾ പോവാണെങ്കിൽ ഒരു പതിനൊന്നു മണിക്കുള്ളിൽ നമ്മൾ കയറിയിറങ്ങണം അവിടുന്ന് ആ എന്നാലാണൊരു വ്യൂ കാണാൻ പറ്റുവൊള്ളൂ ഓക്കേ ഞാനെന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റേയിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാക്കാം അപ്പോൾ നിങ്ങളിഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തന്നാൽമതി അതുകഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ എന്നാൽ